സാർ ഇന്നലെ ഞാൻ നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് ഒരു പേഴ്സ് വാങ്ങിയ കസ്റ്റമർ ആണ് എനിക്കത് പേഴ്സ് തന്നപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ ഓർഡറിൻ്റെ അല്ല തന്നത് പിന്നേ എനിക്കതിൻ്റെ സൈസും കളറൊക്കെ മാറ്റമായിരുന്നു കുഴപ്പമില്ല സാർ എനിക്ക് അത് ഒന്ന് എങ്കിൽ മാറ്റി തന്നാൽ മതി അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ റീഫണ്ട് ആണെങ്കിലും തിരിച്ച് തന്നാൽ മതി പിന്നെ ഇന്ന് തന്നെ വേണം എന്നില്ല നാളെയായിട്ടാണെങ്കിലും മതി സാർ ഇത് പിന്നെ ഒന്ന് സജസ്റ്റ് ചെയ്യണം നിങ്ങൾ പിന്നെ എനിക്കത് ഉടനെ വേണ്ട ഒരു കാര്യമായിരുന്നു ശരി സാർ താങ്ക് യു സാർ ഓക്കെ ഓക്കെ താങ്ക് യു